ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും അനവധി വ്യത്യാസങ്ങളുണ്ട് ഭാഷ ഭക്ഷണം വസ്ത്രം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കാലാവസ്ഥകളിലും അനവധി വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഭക്ഷണം വസ്ത്രധാരണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ പിന്നെ അനവധി കാഴ്ചകളുണ്ട് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ദക്ഷിണേന്ത്യയില് തണുപ്പാകുമ്പോൾ ഉത്തരേന്ത്യയിൽ ചൂടായിരിക്കും അതുപോലെ ഉത്തരേന്ത്യയില് കൂടുതലും ഉത്തരേന്ത്യയില് കൂടുതലും ചൂടായിരിക്കും ദക്ഷിണേന്ത്യയില് കൂടുതലും കാലാവസ്ഥ മഴ കൂടുതലായിരിക്കും കൂടുതൽ കാറ്റ് അതുപോലെ മരങ്ങള് ആ ഭാഗത്തായിരിക്കും കൂടുതൽ മരങ്ങളും പച്ചക്കറികളും അങ്ങനത്തെ കൃഷികളുമായിട്ടുള്ളത് മറ്റേ ഉത്തരേന്ത്യയില് വ്യത്യാസം കൂടുതല് കൃഷിയൊന്നും ഉണ്ടായിരിക്കില്ല അതുപോലെ തണുപ്പുണ്ടാകും പിന്നെ അനവധി കാഴ്ചകളുണ്ട് പിന്നെ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ബീച്ച് കടലുകൾ അതുപോലെ മലകൾ മലനിരകൾ അതുപോലെ കാടുകൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ ഭാഷ അനവധി ഭാഷകളുണ്ട് എത്രത്തോളം ഭാഷയുണ്ടെന്ന് ഒരുപാട് ഭാഷകളുണ്ട് ഹിന്ദി മലയാളം അതുപോലെ തമിഴ് അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട് ഭക്ഷണങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വസ്ത്രധാരണങ്ങളിലും പിന്നെ രാഷ്ട്രീയം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്